ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും ഫ്ലോപ്പ് എന്ന് പറയുന്ന കാര്യമാണ് പിന്നെ ഞാന് പിന്നെ എല്ലാം ഉണ്ടാക്കും കുറചിച്ചേ കുറചിച്ചേ എനിക്ക് ഉണ്ടാക്കാൻ ഇതുവരെ ആയിട്ടും അറിയില്ലാത്ത ഒന്നാണ് പാലടപ്രധമൻ ഞാൻ ഉണ്ടാക്കി വൻ പരാജയമായ ഒന്ന് ഇനി ഇനി ഉണ്ടാക്കരുത് സേമിയ പായസം നന്നായിട്ട് ഉണ്ടാക്കും അരി പായസം ഉണ്ടാക്കും പിന്നെ അരിയും സേമിയയും മാത്രമെ ഉണ്ടാക്കുകയുള്ളു പിന്നെ ഇൻസ്റ്റൻറ് കുകുകൾ ഒക്കെ വന്നത് കൊണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷെ പാലടപ്രധമൻ ഉണ്ടാക്കിട്ട് അടാറ് ഫ്ലോപ്പ് ആയിപോയി പാലും വേസ്റ്റ് സംഭവം വേസ്റ്റ് എല്ലാം വേസ്റ്റ് അത് ഒരു പിങ്ക് ഷെഡിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാം ഇതാക്കി എന്താ പറയുക ആദ്യം നമ്മള് പഞ്ചസാര ഇട്ടിട്ട് ഞാന് പാലട പ്രധമൻ മറ്റേ അടപ്രധമൻ പോലെ അല്ല ഉണ്ടാക്കിയത് പാലിലാണ് ഉണ്ടാക്കിയത് ശർക്കരയിൻ്റെ പകരം ഞാൻ അവിടെ പഞ്ചസാര ഇട്ടിട്ട് ആക് പിങ്ക് കളർ ആകാൻ വേണ്ടിട്ട് പഞ്ചസാര പിന്നെ പാനി ഇതാക്കോലോ ചൂടാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് പിന്നെ കൺടെന്സ്ഡ് മിൽക്ക് ഒഴിച്ച് അതുകഴിഞ്ഞ് പാലൊഴിച്ച് തിളപ്പിച്ചിട്ട് പിങ്ക് കളറായിട്ട് അതിന് മുൻപ്പ് ഞാൻ അട ഉണ്ടാക്കി വെള്ളത്തിലിട്ട് കഴുകി എടുക്കുക ഒക്കെ ചെയ്തു പക്ഷെ വായിൽ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു അത്രക്കും ഫ്ലോപ്പ് ആയിപോയി